ആ സ്നേഹാ ഞാൻ എന്റെ ഫോണ് നമ്പറും ഈ മെയിലും മാറ്റിയായിരുന്നേ അത് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞുതരണേ ഇലക്ക്ട്രിസിറ്റി ബോര്ഡിന്റെ വെബ്സൈറ്റില് എന്റെ അക്കൗണ്ടു ആക്ക്സെസ് ചെയ്യുന്നതെങ്ങനെയാണെന്നൊന്നു പറയണേ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തായിരുന്നു പാസ്സ്വേർഡ് അടിച്ചു കൊടുത്തു യൂസർ നെയിമും കൊടുത്തു അത് ഞാൻ ലോഗിനും ചെയ്താരുന്നേ അത് പ്രൊഫൈലിൽ ഒക്കെ ഞാൻ സെർച്ച് ചെയ്തിരുന്നു അത് എന്റെ അത് ശരിയായോ എന്നൊന്നു നോക്കാവോ എന്റെ പേര് ഫോൺ നമ്പറും അക്കൗണ്ടിൽ ആയിട്ടുണ്ടോ എന്ന് നോക്കണേ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഫോൺ നമ്പര് ലാസ്റ്റ് എന്പത്തൊന്നെന്ന അക്ഷരത്തിലായിരുന്നു അതിനു മാറ്റം ആയിട്ടുണ്ടോ എന്നൊന്നു ശ്രദ്ധിക്കണേ പിന്നെ അതുപോലെ ഇത് എന്റേത് ശരിയായോ എന്നൊന്ന് നോക്കണേ ഞാൻ നീ പറഞ്ഞപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട് ഒന്നും കൂടെ ഒന്ന് ശരിയായോ എന്ന് നോക്കണേ